ആ ഹലോ കൂട്ടുകാരാ ഞാൻ ഇപ്പോൾ വളരെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ അവധി കാലം നമ്മളെ കൂട്ട ഏ പിന്നെ കുടുബമായിട്ട് വിദേശത്ത് പോവാമെന്നുള്ളൊരു ഒരു ഒരു പ്ലാനിൽ ഇരിക്കുവാണ് അപ്പോൾ അതിന് എല്ലാവരും ഇവിടെ ഒരു സന്തോഷത്തിലാണ് അപ്പം ഞാൻ അതിനൊക്കെ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ എല്ലാവരും കൂടെ പോവുന്നത് കൊണ്ടുതന്നെ പാസ്പോർട്ട് ഒക്കെ ക്ലിയർ ആണോ നോക്കണം പിന്നെ കുഞ്ഞുകൾക്കൊക്കെ അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങൾ അതൊക്കെ നോക്കണം അങ്ങനെ അതിൻറെ ഒക്കെ ഇത്തിരി തിരക്കിലാണ് വളരെ അവരും നല്ല ഒരു സന്തോഷത്തിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ അതിൻറെയൊക്കെ ഒരു തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് പിന്നിട് നമുക്ക് സംസാരിക്കാം ഓക്കെ